പ്രാദേശിക ചാനലുകൾ ധാരാളമുള്ളൊരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് പ്രാദേശിക ചാനലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിന് ചുറ്റുമുള്ള ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വാർത്തകളും ആ ചാനനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു അതുപോലെ തന്നെ ഹാസ്യ ഹാസ്യപരമായുള്ള പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ സിനിമകൾ മറ്റ് മേജിക് ഷോ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ചാനൽ സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ടൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലുമൊരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഈ ചാനൽൻ്റെ സംപ്രേക്ഷണം നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിത്രങ്ങളുടെ ക്ലാരിറ്റീം അതുപോലെ തന്നെ വാർത്തകളുടെ കൃത്യമായ വിവരണം ഒക്കെ ചില സമയത്ത് തെറ്റായി തോന്നാറുണ്ട് അതുപോലെ തന്നെ വ്യക്തത പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നത് വളരെ കുറവാണ് ആ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ചെയ്ഞ്ചുകൾ വളരെ വളരെയേറെ ഈ പ്രാദേശിക ചാനലുകളെ ബാധിക്കുന്നുണ്ട് പ്രാദേശിക ചാനലുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റോം വലിയൊരു പ്രശ്നം അവരുടെ ദൈനം ദിന ചിലവുകളാണോ ഒപ്റ്റിക്കേബിളിൻ്റെയും മറ്റും ഒക്കെ പിന്നെ വില വർധനവും അതുപോലെ തന്നെ ടാക്സും ഒക്കെ അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് അതിനനുസരിച്ച് ഉപഭോക്താക്കളായ നമ്മളിൽ നിന്നും വാങ്ങുന്ന പൈസയുടെയും കേഷിൻറ്റേയുമൊക്കെ അളവും കൂടുന്നുണ്ട് പൈസയ്ക്ക് തക്ക അതായത് രൂപയ്ക്ക് തക്കം മൂല്യമുള്ള വാർത്തകളും അതുപോലെയുള്ള പരിപാടികളും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു അൻപത് ശതമാനം കിട്ടുന്നൂന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്തര് എന്നിരുന്നാലും തന്നെ നമ്മുടെ പ്രദേശത്തെ കൃത്യമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും കൃത്യ അനുന്ദ് അനുദിന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്രദേശത്ത് മനസ്സിലാക്കുവാനുമൊക്കെ ഈ ചാനലുകൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാദേശിക ചാനലുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ പ്രദേശത്തെ കേന്ദ്രീകരിച്ചു ഒരുപാട് പ്രാദേശിക ചാനലുകൾ വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റോം എനിക്ക് ഇഷ്ട്ടപ്പെട്ടതായി തോന്നുന്നത് കേരളാവിഷനാണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാംതന്നെ വളരെ നിലവാരമുള്ളതാണ് അതുപോലെ തന്നെ

ഉൾപ്പെടുത്തി കൊണ്ട് വളരെ വിശാലമായ രീതിയിലാണ് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്ത് എന്നിരുന്നാലും തന്നെ ചാനലുകൾക്ക് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ജനങ്ങളുടെ ദൈനം ദിന ജീവിതത്തിൽ കൃത്യമായൊരു സ്ഥാനം കഴിയുന്നു ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുന്നതിന് ഒരുപാട് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും അവരുടെതായ കഴിവുകൾ വികസിപ്പിക്കുവാനും വേണ്ട ഒരു അവസരം പ്രാദേശിക ചാനലുകൾ നൽകാറുണ്ട് അതുപോലെ പോലീസ് സ്റ്റേഷനും മറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ നമ്മുടെ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ഇവയെല്ലാം ലോക സമക്ഷത്തിലെത്തിക്കുന്നതിന് ഈ ചാനലുകൾ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ സർഗ്ഗാത്മകമായ കഴിവുകളെ വളർത്തുന്നതിനു അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ആഗോളതലത്തിലെത്തിക്കുന്നതിനും ഈ ചാനലുകൾ നമ്മെ ഏറെ സഹായിക്കുന്നു